ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠം എന്നുള്ളത് വിവാഹം കഴിഞ്ഞാല് ഇപ്പോൾ നമുക്കൊരു സ്ത്രീകൾക്കായിട്ട് നമ്മൾക്കൊരു ജോലി കണ്ടെത്തണം അത് വിവാഹം കഴിച്ച് കഴിയുന്ന ആൾക്കാർക്കെ അത് പറഞ്ഞാൽ മനസിലാവൂ എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ നമ്മുടെ ഹസ്ബൻറ്റിനൊരു പെട്ടെന്ന് ജോലി ഇല്ലാതായാലോ സമ്പാദ്യം ഒന്നുമില്ല എങ്കില് നമ്മൾ നന്നായിട്ട് കഷ്ട്ടപ്പെടും ചെലവിന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ടുവരെ പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെനിക്ക് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പഠിച്ച പാഠം എന്നുവെച്ചാല് നമ്മൾ സമ്പാദിക്കുന്നതിനു കുറച്ചോരു ഭാഗം ഫ്യൂച്ചറിലേക്ക് എടുത്ത്വെക്കണം അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് പണിയില്ലാതായി പൈസ ഇല്ലാതായാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പോയി കൈനീട്ടേണ്ടിവരും അപ്പോൾ ആ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്നൊരു പൈസ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭാഗം നമ്മള് ബാങ്കിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എടുത്തു വെക്കേണ്ടത് ഒരു വലിയൊരു കാര്യമാണ് ഫ്യൂച്ചറിലേക്ക് നമ്മൾ മാറ്റി വെക്കണം അതാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു വലിയൊരു പാഠം അല്ലെങ്കില് സ്ത്രീകൾക്കായിട്ടിപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തില് നമുക്ക് സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെ ജോലി ഉണ്ടായിരിക്കണം എന്നാൽ ഒരാളുടെ ജോലി നഷ്ട്ടപ്പെട്ടാൽ മറ്റൊരാളുടെ ജോലിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരാൾടെ ജോ ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ അവര് അവരുടെ ജോലി പെട്ടെന്ന് പോ നഷ്ടപ്പെട്ടാല് കുട്ടികളും കൂടി ഉണ്ടെങ്കില് അവരെപോലും നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് നോക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു ചിന്ത ആ ഒരു പാഠാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത്